ഞാൻ കുറച്ച് സാ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നത് ആണ് കേട്ടോ ഞങ്ങൾ ബാംഗ്ലൂർ ആണ് താമസിക്കുന്നത് അപ്പം അവിടെ കുറച്ച് റേറ്റ് കൂടുതൽ ഞങ്ങൾ കുറച്ച് അധികം ഡ്രസ്സുകൾ ബൾക്ക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് അപ്പം ഇവിടെ എത്രയാണ് റേറ്റ് ഒക്കെ വരുന്നത് സാരിസ്

റേറ്റ് ഒക്കെ എങ്ങനെയാണ് സാരിക്ക് ആ അപ്പം നമുക്ക് ഒരു പതിനഞ്ച് സാരിയോളം വേണം അപ്പം നല്ല ഡിസൈൻസിൽ പുതിയ കളക്ഷൻസ് നോക്കി വന്നതാണ് അപ്പം ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പം അത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആണ് വന്നത് ജസ്റ്റ് ആ സാരി ഒന്ന് എടുക്കുമോ

ആ ആ ഓക്കെ ഓക്കെ ഓ ആ ആ ആ ഷർട്ട് വേണം നമുക്ക് ഒറ്റ കളർ ആണ് കൂടുതലും വേണ്ടത് അപ്പം ഒരു പതിനഞ്ച് ഷർട്ടോളം വേണം നമുക്ക് അപ്പം

നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ആയിരുന്നു അപ്പോൾ ഡ്രസ്സ് കോഡ് ആ ഡ്രസ്സ് കോഡ് ആണ് അപ്പം ഗ്രീൻ കളറിൽ ഷർട്ട് ഒരു പ്രിൻ്റഡ് വർക്ക് ആയിട്ട് ആണ് ഓണത്തിൻ്റെ അതായത് പൂക്കളത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കഥകളീൻ്റ ഒക്കെ ഒരു പിക്ച്ചർ ഒക്കെ ആയിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്ത് ആ ഓക്കെ ഓക്കെ നമുക്ക് വേണ്ട സൈസ് എന്ന് വെച്ചാൽ സ്മോൾ മീഡിയം ലാർജ് ഈ മൂന്ന് സൈസിൽ ആണ് നമുക്ക് ഷർട്ട് വേണ്ടത് ആ ഓക്കെ ഈ അലീ കട്ട് മോഡൽ ചുരിദാർ വരുന്നുണ്ടോ ഫ്രണ്ടിൽ വി വി നെക്ക് ആയിട്ട് ആ ആ അതും കുറച്ച് നമുക്ക് വേണം എന്താണ് വെച്ചാൽ നമുക്ക് അവിടെ അവിടെ വെച്ച് നോക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ വളരെ റേറ്റ് കുറവാണെന്ന് ആണ് ഞാൻ കേട്ടിട്ട് ഉള്ളത് അപ്പം ഇത്രയും ഒക്കെ നമുക്ക് അവിടെ ബാംഗ്ലൂർ ഭയങ്കര റേറ്റ് ആണ് അപ്പം നമുക്ക് കുറച്ച് അധികം എടുക്കാൻ വേണ്ടിയിട്ട് ആണ് അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തരില്ലേ ആ ഓക്കെ ഓണത്തിന് നല്ല ഓഫർ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് വന്നത് അപ്പം നിങ്ങൾ അതിന് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ആ ഓക്കെ

ആ ഓക്കെ ഓക്കെ ക്യാഷ് നമുക്ക് ഗൂഗിൾ പേ ചെയ്താലും മതിയല്ലോ അല്ലേ ആ ഓക്കെ കാർഡ് എടുക്കുമോ ഇവിടെ ആ ഓക്കെ ഓക്കെ ഞാൻ നമ്മൾ നേരത്തെ മുമ്പ് ഒരു ഷോപ്പിൽ പോയി അവിടെ കാർഡ് ഒന്നും എടുക്കില്ല ക്യാഷ് തന്നെ വേണമെന്ന് എന്തുവാ ഇവിടെ ആ അവിടെ ബാംഗ്ലൂർ ഒക്കെ കാർഡ് ആണ് നമ്മൾ കൊടുക്കാറ് ഓ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ആ ഓക്കെ